ആ ആ എന്ത് ആ ഇത് മോളിക്കുട്ടിയാണെ കൊപ്പ്ര ആട്ടുന്ന സ്ഥലമാണൊ ഇത്

ഉം ആ അതെ ആ അ ആ എനിക്കേ കുറച്ച് കൊപ്പ്ര ആ തേങ്ങ ഉണ്ടായിരുന്നു ആട്ടാനായിട്ടേ അതേ ഉണങ്ങുന്ന ആ ഇപ്പോഴായി ഇപ്പം പുതിയ ഒരു മെഷീനൊക്കെ ഉണ്ടല്ലൊ ഉണങ്ങി ആട്ടിത്തരുന്നത് അത് ശരി ആ

ആ അത് ശരി അപ്പോഴേ നല്ല നല്ല വെളിച്ചെണ്ണ വിലക്ക് കിട്ടും തരുമോ ആണൊ ആ അപ്പോൾ ഫ്രഷായിട്ടുള്ള എണ്ണയാണൊ

ആ ശരി ആ നല്ല മണമൊക്കെ കാണുമല്ലൊ അല്ലെ ആ ആ തെളിഞ്ഞതായിരിക്കും അല്ലെ കൊടുക്കുന്നത് അത് ശരി ആ ആ ആ ആ ആ നല്ല ആ ഇപ്പം അങ്ങനെ അങ്ങനെ ആ ആ അങ്ങനെ ഇപ്പോൾ കേട്ടു കേട്ടു ഇങ്ങനെ പച്ചത്തേങ്ങ കൊണ്ടുവന്നാൽ മതി അതുണക്കി ആട്ടി വെളിച്ചെണ്ണയാക്കിത്തരുമെന്ന് അത് ശരി അതു ശരി ആ എനിക്കിത് വെളിച്ചെണ്ണ വേണം നല്ല വെളിച്ചെണ്ണ വേണം അതിനാണ് ഞാനിപ്പം വിളിച്ചത്

ആ ഒരഞ്ച് കിലോ വേണം

നൂറ്ററുപത് ആ നൂറ്ററുപത് രൂപ വില അല്ലെ ആ ഓക്കെ ആ അത് ശരി ആ അത് ശരി ആ

ആ വരും വരും ആ എന്നാൽ ഞാനിന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഒക്കെ പത്ത് മണിയൊക്കെ ആവുമ്പം വരാവെ വച്ചേക്കണം വേറാർക്കും കൊടുക്കരുത് കേട്ടൊ ആ ആ ആ ആ ശരി എന്നാൽ ഹലോ ആ ആ ശരി ആ പറഞ്ഞൊ ഹലോ ഹലോ ആ എന്താ പറഞ്ഞോ ആ ഞാൻ തന്നെയാണ് മോളിക്കുട്ടി തന്നെയാണ് ഞാൻ കട്ടായില്ലായിരുന്നല്ലൊ ആ ശരി എന്നാൽ

ആ ശരി ശരി ഓക്കെ ഓക്കെ എന്നാൽ